ആ ചേട്ടാ അത് ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് ആവുന്നില്ല ഞാൻ ക്യാഷ് കയ്യിൽ തന്നോട്ടേ ആ ആവുന്നില്ല സംഭവം ഇത് ബേങ്കിന്റെ എന്തോ സെർവർ ബിസിയെന്നാണ് പറയുന്നത് ക്യാഷ് ഉണ്ട് കയ്യിൽ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ തരാം അത് പറ്റില്ല പറഞ്ഞാൽ എങ്ങനാണ് ചേട്ടാ ഇതിനു മുൻപ് ഞാൻ ഇതുപോലെ ഓൺലൈൻ ടാക്സി യൂസ് ചെയ്യുമ്പോൾ അവരുടെ കൈയ്യിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് പ്രശ്നം ഒന്നും ഉണ്ടാരുന്നില്ലല്ലോ ആ ഫുൾ ക്യാഷ് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാമെന്നല്ലേ പറയുന്നേ കാരണം പേയ്മെന്റ് ആവുന്നില്ല അതാണ് ഞാൻ രണ്ടു മൂന്നു തവണ ശ്രമിച്ചു ആവുന്നില്ല നിങ്ങള് സാഹചര്യം മനസിലാക്കൂ ഞാൻ ഇത്രയും എമൗണ്ട് ഫുള്ളായിട്ട് ക്യാഷ് കയ്യിൽ തരുന്നുണ്ടല്ലോ പിന്നെന്താണ് പ്രശ്നം കാരണം പറ്റുന്നില്ല ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് ആവുന്നില്ല ഞാൻ രണ്ടു മൂന്നു തവണ ആയി ശ്രമിക്കുന്നു ക്യാഷ് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നു നിങ്ങളത് അക്കൗണ്ടിൽ ഇട്ടാൽ പോരേ ഓക്കേ താങ്ക് യു ചേട്ടാ